ഞാനൊരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നൊരു വ്യക്തിയല്ല എന്നാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ഭജന ട്രൂപ്പുണ്ട് അമ്പലങ്ങളില് ഉത്സവം വരുമ്പോള് ഒരുകൂട്ടം സ്ത്രീകള് സ്ത്രീകൾ ഉൾപ്പെടുന്നൊരു ഭജന ട്രൂപ്പാണ് ഇവിടെ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങള് വരുമ്പോള് ഇവര് അമ്പലങ്ങളില് പോയി ഭജന കൂടാറുണ്ട് ഈ ആറ്റുകാൽ അമ്പലങ്ങളിൽ അമ്പലത്തിലും പദ്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് പ്രമുഖ അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോള് ഇവരെ ആളുകള് ക്ഷണിക്കാറുണ്ട് ഭജനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇരുപത് പേരോളം അടങ്ങുന്ന ഒരു ട്രൂപ്പാണ് ഈ ഭജന ട്രൂപ്പെന്ന് പറയുന്നത് അവര് ഒത്തുകൂടുന്നത് ഈ ഭജന ട്രൂപ്പിൻ്റെ ലീഡറായ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ വീട്ടിലാണ് സാധാരണ ഒത്തുകൂടാറ് ഒരു ശനിയാഴ്ചകളിൽ ഒത്തുകൂടി പാട്ടുകള് പാടുന്നതും ഭജന കൂടുന്നതുമൊക്കെ ഞാൻ കേള്ക്കാറുണ്ട് അവര് അമ്പലങ്ങളില് ഉത്സവം അടുക്കുമ്പോള് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാക്റ്റീസീയ്യാന് വേണ്ടി ഈ ചേച്ചിയുടെ വീട്ടില് വരാറുണ്ട് ഈ ചേച്ചിയുടെ വീട്ടിലിരുന്നാണ് ശ്രുതി ശ്രുതിയും ബാക്കി സംഗീതോപകരണങ്ങളും സാധനങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നതും ശരിയാക്കി അത് കറക്റ്റാണോ എന്ന് നോക്കുന്നതുമൊക്കെ അപ്പഴാണ് ആ സമയത്താണ് ചെയ്യുന്നത് അതുപോലെ അവരുപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ എന്നു പറയുമ്പോൾ തബല മൃദംഗം വീണ വയലിൻ പിന്നെ ശ്രുതി ബോക്സും അവര് അവരുടേതായ ചില കോഡ്സും തംബുരു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവര് ഉപയോഗിച്ച് ഞാന് കണ്ടിട്ടുണ്ട് അപ്പോള് ഇവിടുള്ളൊരു ഒരു ഞാൻ ഒരേ ഒരു ഭജന ട്രൂപ്പിനെ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളു ആ ഭജന ട്രൂപ്പ് ആണ് ഇവിടത്തെ മെയിനായിട്ടുള്ള അമ്പലങ്ങളിലെല്ലാം പോവുന്നത് ഇടയ്ക്കിടെ ഒത്തുകൂടി അവരുടെ സംഗീതം അവര് നന്നായി പാടിപ്പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ആണവരത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവര് വളരെയധികം ആൾക്കാര് അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ സംഗീതം കേള്ക്കാന് വേണ്ടിയിട്ട് വരാറുണ്ട് പ്രമുഖ അമ്പലങ്ങളിലെല്ലാം അവരെ വിളിച്ച് അവരെ കൊണ്ട് ഭജന പാടിക്കാറും ഉണ്ട്